ആ ഹലോ ടീച്ചർ ഞാൻ എഡ്വിൻ്റെ പേരൻ്റ് ആയിരുന്നു അല്ല അവൻ പൊതുവെ ക്ലാസിൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു

ആ മാർകൊക്കെ എങ്ങനെയുണ്ട് ടീച്ചറേ

ആണല്ലേ ആ ആ ആ ഞാൻ ആ

ഓക്കെ ഞാൻ അവന് ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കൊടുക്കണമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും കൂടെ വിളിച്ചതായിരുന്നു

ആണ് അല്ലേ ആ അ അസൈൻമെൻസൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ മാഡം ആ ആണല്ലേ അപ്പം ആ അപ്പം അതിലൊന്നും എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ഇല്ലല്ലോ അതെ അവന് മാത്സ് കുറച്ച് പാടായിരുന്നു ഇപ്പം ഇടയ്ക്ക് ട്യൂഷൻ ഒക്കെ വിടാമെന്നൊക്കെ വിചാരിച്ചു ഇരിക്കുകയായിരുന്നു ട്യൂഷന് വിടണോ ടീച്ചറേ ആ ഓക്കെ ടീച്ചറേ എന്ന അത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു

ആണല്ലേ ആ ഓക്കെ ടീച്ചറേ താങ്ക് യു